ഹലോ പിന്നെ മൺതുരുത്തി അവിടെ ഒരു ബോട്ടിംഗ് സർവീസ് അല്ലെ വിൻ്റെജ് ബോട്ടിംഗ് സർവീസ് അല്ലെ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് അവിടെ ബോട്ടിം ബോട്ടിങ്ങിന് വരണം അപ്പോൾ എങ്ങനെ ആണ് റേറ്റും അങ്ങനെയൊക്ക എയ്റ്റ് എട്ടു പേര്

ഓ ഫുൾ കാണണം ഫുള്ള് കാണണം ഫുള്ള് കാണണം എത്ര ടൈം എടുക്കും ഒരു ഡേ മൊത്തം എടുക്കുമോ ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓ ഒക്കെ ഒക്കെ പിന്നെ അവിടെ ഫുഡ് അതിനകത്തു തന്നെ അപ്പം നിങ്ങൾ ബോട്ടിൽ തന്നെ ഫുഡ് ഒക്കെ സെറ്റാണോ സെറ്റാവുമല്ലോ പിന്നെ ഫിഷിങ് ഒക്കെ ഉണ്ടല്ലോ അവിടെ അവിടെ അവിടെ ഫിഷിങ് ഒക്കെ അല്ല സാധനങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമായിരിക്കുമല്ലോ

പിന്നാ അവിടെ ഒരു അവിടെ ഇറങ്ങി നീന്താനുള്ള സ്പോട്ടൊക്കെ ഉണ്ടല്ലോ ചെറിയ ആഴം കുറഞ്ഞ സ്പോട്ടൊക്ക

ആ ഓക്കേ അപ്പം അടുത്ത ഒരേ ഒരേ ഇതായിട്ടായിരിക്കുമോ രണ്ടു ബോട്ടും പോകുന്നത് അല്ല തമ്മിൽ തമ്മിൽ നമുക്ക് കാണാമല്ലോ ഓ ഇത് കുട്ടികളായിട്ടല്ല നമ്മൾ ഫ്രണ്ട്സായിട്ട് വരുന്നത് അല്ലാ പിന്നെ ഫാമിലിയിലെ നമ്മൾ കസിൻസ് അങ്ങനെ ആയിട്ടാണ് വരുന്നത് ആ എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞതാണ് എല്ലാവരും പതിനെട്ട് വയസ് കഴിഞ്ഞതാണ് ഓ അപ്പോൾ നമ്മൾ കസിൻസാണ് അപ്പോൾ നമ്മൾ ഫാമിലിയിലെ കസിൻസൊക്കെ ആയിട്ടാണ് വരുന്നത് പേയ്മെൻ്റ് അമ്മാ എങ്ങനെയാണ് നിങ്ങൾ നേരത്തെ ചെയ്തു തരണോ അല്ലെ അല്ലാ അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഫുൾ ഫുള്ള് മറ്റേ കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെ മതി അല്ലാതെ പിന്നെ താറാവ് അങ്ങനെയുള്ള പരിപാടികൾ മാത്രം ആ ആ കുട്ടികളില്ല ഫിഷോക്കെ പോകും ഫിഷാണ് മെയിൻ ഫിഷ് ആണ് മെയിൻ നമ്മൾക്ക് ഫിഷിങ് ചെയ്യണം പിന്നെ മറ്റേ അതിൻ്റെ എടേല് നിങ്ങൾ മറ്റേ ഈ ഗൂഗിളിലൊക്കെ നോക്കിയപ്പം മറ്റേ അതിനകത്ത് കുറെ കുറച്ചാഴം കുറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇറങ്ങാൻ പറ്റും അപ്പോൾ ആ സ്പോട്ടിൽ വേണം ആ സ്പോട്ട് ആ ഒക്കെ ഓക്കേ ഓക്കേ ഓ പിന്നെ നമുക്കകത്ത് നമുക്ക് പുറത്ത് നിന്ന് ഫുഡ് അകത്ത് കൊണ്ട് വരാൻ പറ്റുമോ ഹോട്ടലിൽ ഹോട്ടലിന് അകത്തോട്ട് ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ എയ് ഇല്ല ഇല്ല ഇല്ല വേറൊന്നും ഇല്ല നമ്മൾ ആ സർവീസിൻ്റെ സമയാകുമ്പം പറയാം

ഓക്കേ ഓക്കേ